ഇന്ത്യയിൽ കാലാവസ്ഥ ഓരോ പ്രദേശങ്ങളും വെച്ച് നോക്കുമ്പോൾ എല്ലാം വ്യത്യസ്തമായ കാലാവസ്ഥകളാണ് ഇന്ത്യയിലുള്ളത് ഓരോ സംസ്ഥാനങ്ങളെ എടുത്ത് നോക്കുമ്പോഴും ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ കാലാവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റും മരുഭൂമി ഉണ്ട് മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളുണ്ട് തീരപ്രദേശങ്ങളുണ്ട് വനമേഖലകളുണ്ട് അങ്ങനെ തുടങ്ങി എല്ലാ കാലാവസ്ഥകളും ഈ ഇന്ത്യയിലുണ്ട് ലോകത്തിലുള്ള മറ്റ് രാജ്യങ്ങളിൽ ഇങ്ങനെയെല്ലാം ലഭിക്കണമെന്നില്ല മഞ്ഞുള്ള രാജ്യങ്ങൾ മാത്രമുണ്ട് മരുഭൂമി മാത്രമുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാലാവസ്ഥകളും ഒത്തൊരുമിച്ച് കൂടിയ ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ രാ കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് കേരളത്തിലേത് കേരളം എന്ന് പറയുന്നത് തീരപ്രദേശവും മലനാടും ഇടനാടും എല്ലാം ഉൾച്ചേർന്നൊരു നാടാണ് അതുകൊണ്ട് തന്നെ തണുപ്പിന് വയനാടും ഇടുക്കിയും വേനലിന് ചൂടിന് മലപ്പുറവും കോഴിക്കോടും പാലക്കാടും മറ്റു സന്തുലിത കാലാവസ്ഥ മറ്റ് സംസ്ഥാന ജില്ലകളിലും നിലനിൽക്കുന്ന ഒരു നാടാണ് കേരളം മരങ്ങളുടെ എണ്ണം ഏറ്റവും കൂടുതലായത് കൊണ്ട് തന്നെ തണുപ്പ് ഇവിടെ കൂടുതലാണ് ഇന്ത്യയിലെ കശ്മീർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ മഞ്ഞ് പെയ്യുന്ന താഴ്വരകളും ഇന്ത്യയുടെ രാജസ്ഥാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ മരുഭൂമികളും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ തീരപ്രദേശങ്ങളും എല്ലാം ഉൾച്ചേർന്ന ഒരു മനോഹരമായ എല്ലാ കാലാവസ്ഥക്കും അനുയോജ്യമായ ഒരു നാടാണ് ഇന്ത്യ ഏറ്റവും മനോഹരിത മാത്രമല്ല ഇന്ത്യയുടെ പ്രത്യേകത ഈ ഇത്രയും സംസ്കാരങ്ങൾ ഒത്തുചേർന്നത് കൊണ്ട് തന്നെ സംസ്കാരത്തിൻ്റെ വൈവിധ്യങ്ങൾ നമുക്ക് ഇവിടെയെല്ലാം കാണാൻ സാധിക്കും